ഇപ്പം ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് മറ്റുള്ള മറ്റു അതായത് മറ്റു സംസ്ഥാനങ്ങള് രാജ്യങ്ങള് ഒക്കെയായിട്ട് ബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കില് നമ്മുടെ രാജ്യത്ത്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആരോഗ്യ സംരക്ഷണം വളരെ മോശായിട്ടുള്ളൊരു സ്ഥിതിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ശുചിത്വം എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്ത ഒരു ആശുപത്രികളാണ് നമ്മളെ കുടുതലും നമ്മളുടെ ഇന്ത്യയിലുള്ളത് ഇന്ത്യയില് ഏ നമ്മളുടെ കേരളത്തില് പിന്നെയും വലിയ കുഴപ്പം ഇല്ലാത്ത രീതിയില് അത്യാവശ്യം നല്ല ഡോക്ടർമാര് നല്ല ഫെസിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉള്ള ഡോ എന്താ പറയുക സ്ഥലങ്ങള് കേരളത്തിലുണ്ട് പിന്നേ മംഗലാപുരം അങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊലൊക്കെ ഉണ്ട് ബാക്കി ഉള്ള ഈ ന്യൂ ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയികഴിഞ്ഞാല് നമ്മള് ആര് നമ്മളെ ആരും നോക്കാത്ത ഒരീ ഇതാണ് അവിടെ കാണുന്നത് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടുത്തെ ഡോക്ടർമാരൊന്നും വലിയ രീതിലുള്ള പഠിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയായിരിക്കും അപ്പോൾ അവർക്ക് ഇതെന്താ സംഭവമെന്ന് കൂടെ അറിയാത്ത ആൾക്കാര് ആൾകാരൊക്കെയായിരിക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യുവ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒ പി ചീട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുന്നത് വരെ ക്യുവ് കാര്യങ്ങളായിരിക്കും ചെ ചിലവ് കൂടുതലായിരിക്കും ഇവരുടെ സേവനം വലിയ രീതിയിൽ എന്താ പറയുക സെറ്റപ്പ് ആയിട്ടുള്ള സേവനങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കുകയില് ഇതൊക്കെ അവിടെ ഉള്ള ഒരു പ്രശ്നമാണ് പ്രധാന പ്രശ്നാണ് ഇപ്പോൾ ഇതൊക്കെ മെച്ചപ്പെടുത്തുക ആണെങ്കിൽ നല്ല രീതിലുള്ള ആശുപത്രി സേവനങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തുറന്നു നല്കാൻ വേണ്ടിയിട്ട് സർക്കാര് ഒന്ന് പ്രയത്നിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു